എന്തുകൊണ്ടും ഒറ്റയ്ക്ക് സൈക്കിൾ ചവിട്ടി പോകുന്നതിലും ബെറ്ററ് നമ്മൾ മറ്റൊരു വ്യക്തികളുടെ കൂടെയും മറ്റൊരു ഗ്യാങ്ങിന്റെ കൂടെയുമായിട്ട് പോകുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് കാരണം നമ്മൾ ഒറ്റയ്ക്ക് സൈക്കിളും കൊണ്ടൊക്കെ യാത്ര ചെയ്യണതും ബൈക്ക് കൊണ്ടൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കുറച്ചു ദൂരം പോകുമ്പോഴത്തേക്കും നമുക്ക് മാനസികമായിട്ട് ഒരു ഒരു മടുപ്പ് തോന്നാൻ ചാൻസുണ്ട് അപ്പോൾ ഇതുവച്ച് നോക്കുമ്പോൾ കുറച്ച് ഒരു ഗ്യാങ്ങായിട്ട് പോകാൻ ഒരു കുറച്ചു സംഘങ്ങളുമായിട്ട് പോവുകയാണെങ്കിൽ അവരോട് ചില്ലായി അതായത് അവരോട് സംസാരിച്ച് നമുക്കിങ്ങനെ നടക്കുന്നത് കാരണം പോകുന്നതുകൊണ്ട് നമുക്കൊരു മടുപ്പു ഉണ്ടാവില്ല പിന്നെ നമ്മളെന്ന് പറയുമ്പോൾ സൗഹൃദം കൊണ്ട് ഒരുപാട് വാഹനങ്ങൾ എടുക്കുന്നവരാണ് ഇപ്പോൾ സൗഹൃദത്തിലെ ഉള്ളവർക്ക് തന്നെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാടുണ്ടാകും അപ്പോൾ നമ്മൾ അവരുടെ കയ്യിൽ നിന്നുതന്നെ മേടിച്ച് അതായത് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഒക്കെ പോകുന്നവരുമുണ്ട് അതുപോലെ നമ്മൾ നമ്മുടെ വണ്ടിയും അവർ അവരുടെ വണ്ടിയും ആയിട്ട് ഒക്കെ ഒന്നിച്ച് ഒരു സംഘം ചേർന്ന് യാത്ര പോകുമ്പോൾ നമുക്ക് എത്ര ദൂരം പോയാലും ഒരു മടുപ്പൊന്നും ഫീൽ ചെയ്യില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കോൺടാക്ടിൽ ഉള്ളവരെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് യാത്ര മറ്റുള്ളവരുമായിട്ട് ഒരു കണക്ഷനൊക്കെ ഉണ്ടാകും പിന്നെ ഓരോരോ ഗ്രൂപ്പായി നമുക്ക് ഇങ്ങനെ ലോങ്ങ് ഡ്രൈവൊക്കെ പോകുന്നതിന് ഇത് എളുപ്പമായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ ആണ് നമുക്ക് ഒരു സംഘം ചേർന്ന് പോകുന്നത് ഈ ഒറ്റയ്ക്ക് പോകുന്നതിലും എന്തുകൊണ്ടും നല്ലത് സൈക്കിളൊക്കെ എടുത്ത് സൈക്കിളിൽ ആയാലും ബൈക്കിൽ ആയാലും നമുക്ക് ഒരു ഗ്യാങ്ങ് ആയിട്ട് പോകുന്നത് തന്നെയാണ് ബെറ്റർ